ഗതാഗത സൗകര്യം എന്ന് പറയുമ്പം ചില സ്ഥലങ്ങളിലൊക്കെ ഗതാഗത സൗകര്യം തീരെ കുറവാണ് ചില ഗ്രാമങ്ങളിൽ നിന്ന് പട്ടണത്തിലേക്കു പോകണമെങ്കിൽ പഠിക്കാനാണെങ്കിലും പിള്ളേർക്കാണെങ്കിലും കിലോമീറ്റ്ർ കണക്കിന് നടന്ന് വേണം പോകാൻ ഞങ്ങളുടെ പഞ്ചായത്തിനെപ്പറ്റി പറയുകയാണെങ്കിൽ തോക്കാട് പഞ്ചായത്തിനെപ്പറ്റി പറയുവാണെൽ രാവിലെ ഒരു വണ്ടിയുണ്ടാവും വൈകുന്നേരം ഒരു വണ്ടിയുണ്ടാവും ബാക്കിയുള്ള സമയത്തൊന്നും ബസ്സില്ല അതിന് പകരം ഓട്ടോറിക്ഷകളൊക്കെ പോകും അത്രയും ഉള്ളു പിള്ളേര് പഠിക്കാനൊക്കെ ആയിട്ട് നാലോ അഞ്ചോ കിലോമീറ്റർ ഒക്കെ നടന്നിട്ട് വേണം പോകണമെങ്കിൽ രണ്ട് മൂന്ന് ബസ്സൊക്കെ ഉണ്ടായിരുന്ന അവരൊന്നും ആളില്ലാതെ അവർക്ക് മുതലാകത്തില്ല എന്ന് പറഞ്ഞ് അതെല്ലാം നിർത്തി പോയി ഉപരിപഠനത്തിനെന്ന് പറയുമ്പം പിന്നെ ഇതിനാണെങ്കിൽ ഈ ബെസ്സ് ബെസ്സ് കുറവാണ് നമ്മുടെ അവിടെ ഉള്ള ഇത് ദൂരോട്ടുള്ള ബസ്സുകളൊന്നുമില്ല പിന്നെ ദൂരോട്ടുള്ള ബസ്സുകളൊക്കെ കിട്ടണമെങ്കിൽ നിലമ്പൂര് ഇങ്ങനെ ഒക്കെ ഉള്ള പട്ടണങ്ങളിലൊക്കെ വരണം അവിടുന്ന് അവിടെ മറ്റുള്ള സംസംസ്ഥാനത്തിൻ്റെ പല സ്ഥലത്തോട്ടുള്ള ബസ്സുകളൊക്കെ പോകും നമ്മുടെ ഇവിടുന്ന് ഒരു ബസ് ഉണ്ട് അതിലെ ടച്ച് ചെയ്ത് പോകണ്ട അത് രാവിലെ പോയാൽ വൈകുന്നേരമേ പോയി വരത്തുള്ളു പിന്നെ ഇടയ്ക്ക് ബസ്സുകളൊന്നുമില്ല ശെരിക്ക് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പുള്ളിക്ക് പഠിക്കാൻ പോകുന്ന പിള്ളേർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ബുദ്ധിമുട്ടില്ലാഴ്ക ഒന്നുമില്ല